സുഗതകുമാരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മലയാളത്തിലെ പ്രശസ്ത കവിയത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവുമായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു സുഗതകുമാരി അതു മാത്രമല്ല കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണും ആയിരുന്നു പ്രകൃതി സംരക്ഷണ സമിധിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെൻ്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി സ്ഥാപക സെക്രട്ടറി ആണ് ഇവർ സേവ് സൈലൻ്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് മരിച്ചത് പിന്നെ അനേകം കൃതികൾ എഴുതിട്ടുണ്ട് മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ പിന്നെ പാവം മാനവ ഹൃദയം രാത്രിമഴ അമ്പലമണി തുലാവർഷ പച്ച തുടങ്ങിയ കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട് അനേകം പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ ഓടകുഴൽ പുരസ്കാരം വയലാർ അവാർഡ് ലളിതാംബിക അന്തർജ്ജന അവാർഡ് വള്ളത്തോൾ അവാർഡ് തുടങ്ങിയ ബാലാമണിയമ്മ അവാർഡ് തുടങ്ങി കുറെ അവാർഡുകൾ നേടിയിട്ടുണ്ട് അവസാനം ഈ കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ടീച്ചറ് മരിച്ചത് എൺപത്താറ് വയസ്സായിരുന്നു അന്നേരം